ഇപ്പോൾ എഫ് എം ല് എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെട്ട പരുപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലതരം പരിപാടികൾ ഉണ്ട് കാരണന്ത് വെച്ചു കഴിഞ്ഞാല് പാട്ട് പിന്നെ ഓരോരോ പരിപാടികള് ഇപ്പം പണ്ട് മാറ്റൂലെ അങ്ങനത്തെ കുറെ പരിപാടികള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളതെന്ന് വേണമെങ്കിൽ പറയാം പാട്ട് കേൾക്കാനാണ് എനിക്ക് കുറച്ചൂടെ ഇഷ്ട്ടം എന്ന് പറയാം കാരണന്തെന്നു വെച്ചു കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടും താല്പര്യമുള്ളത് ഇപ്പോൾ വണ്ടീലൊക്കെ പോകുന്ന സമയത്ത് നമ്മള് ഒരേ പാട്ട് തന്നെ കേട്ടോണ്ടിരിക്കാണ്ട് ഇപ്പം എഫ്എംമിലെ ഒക്കെ ആണെങ്കില് ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങള് ഇപ്പം എവിടെങ്കിലും ബ്ലോക്ക് കാര്യങ്ങള് ഒക്കെ ഉണ്ടെങ്കില് എഫ്എംമ്മിലൂടെ പറ പറയും അപ്പോൾ അതൊക്കെ ആണ് എനിക്ക് ഏറ്റം ഇഷ്ട്ടം അപ്പം കോഴിക്കോട് ജില്ലയില് പല സ്ഥലങ്ങളിലക്കെ എഫ്എമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ട് എഫ്എംമ്മാണ് കേൾക്കുന്നത് പിന്നെ ടീവിയിലുള്ള പരിപാടികളെ കുറിച്ച് പറയാണെങ്കില് പലതരം പരിപാടികളുണ്ട് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെ നമുക്ക് കോമഡി ഉത്സവം പിന്നെ ഒരു ചിരി ബം ഇരു ചിരി ബംമ്പർ ചിരി അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ് കൂടുതലായിട്ട് എനിക്ക് കാണാൻ ഇഷ്ട്ടം അല്ലാത്തെ സീരിയലുകളൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല കാരണന്താന്നു വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഈ അമ്മമാര് കാണുന്ന ടൈപ്പ് സീരിയലുകളക്കെയാണ് അപ്പം അത് കൂടുതലായിട്ട് അവരാണ് കാണുന്നത് എനിക്ക് കാണാനുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്